തീർച്ചയായും സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിക്കുന്നത് പ്രാധാന്യം ഉണ്ട് എന്തെന്ന് വച്ചാൽ ഇന്നത്തെ തലമുറയിൽ ഉയർന്നു വരുന്ന തലമുറകൾക്ക് അതായത് പോയത് കഴിഞ്ഞു പോയത് നൂറ്റാണ്ടുകളിൽ ഉള്ള സംഭവങ്ങൾ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല അപ്പം ഈ ചരിത്രം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ എടുത്ത് പറയുക ആണെങ്കിൽ നമ്മളെ രാമ ക്ഷേത്രത്തിന്റെ സംഭവങ്ങൾ അത് എന്താണെന്ന് പോലും അറിയില്ല പിള്ളേർ ഓർക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലാണ് കാണാനാണ് പലരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മളത് രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെയോ എടുക്കാതെ അതിലെ ചരിത്രപരമായ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അത് എന്തുകൊണ്ടാണ് തകർന്ന് പോയത് അത് ഉണ്ടായത് എങ്ങനെ ആണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് അത് എന്തിനെ പ്രതിപാദിച്ചിട്ടുള്ള സംഭവങ്ങൾ ആണെന്നുമുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അങ്ങനെ പഴയ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് അവരുടെ അറിവിലേക്ക് കൊണ്ടുവരാൻ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് നല്ലതാണ് അതായത് ആധുനിക മനുഷ്യൻ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് പിന്നെ ഓരോ കൊട്ടാരങ്ങളാകട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആകട്ടെ അത് എന്താണെന്നും ആ സംഭവങ്ങൾ എന്താണെന്നും യുദ്ധം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇന്നത്തെ സമൂഹത്തിൽ പിള്ളേർക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിവില്ല അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ച് പഠിക്കാൻ പഠിപ്പിക്കുമ്പഴോ അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് താല്പര്യക്കുറവാണ് പക്ഷെ അതെന്താണെന്ന് സംഭവമെന്നൊന്നും കുട്ടികളിൽ കൂടുതലായിട്ട് എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയുന്നില്ല അതാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം ചരിത്രത്തെ കുറിച്ച് ഒരറിവും കുട്ടികളിൽ ഉണ്ടാവാതെ പോകുന്നു ആ സബ്ജെക്റ്റിനോട് തന്നെ അല്ലെങ്കിൽ വിഷയങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങളോട് തന്നെ അവർക്ക് ഒരു താൽപര്യം ഇല്ലാതെ വരുന്നു അവരുടെ മനസ്സിൽ തെറ്റായ രീതിയിലുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായോ മറ്റേതെങ്കിലും തരമായോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കയറി കൂടുന്നു എന്നിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ആണ് അതാണ് സംഭവം എന്നും പറഞ്ഞു കൊണ്ട് തർക്കിക്കാനേ ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളു പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതെന്താണെന്നും ഏതാണെന്നും എങ്ങനെ വന്നതാണെന്നും എന്തുകൊണ്ടാണ് എന്നുമൊക്കെ സംഭവങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് അതിനെ എന്റെ പ്രദേശത്തും അതെ ഞാനും പഠിച്ചിട്ടുണ്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കാറുമുണ്ട് പഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു സംഭവം എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ അറിയുമ്പോഴാകട്ടെ അതിനെ കുറിച്ച് കൂടുതൽ കേൾക്കാനായിട്ടും അല്ലെങ്കിൽ താൽപര്യങ്ങൾ അതിനോടുള്ള താൽപര്യങ്ങൾ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതിനെ കുറിച്ച് പ്രാധാന്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം